ഇപ്പോൾ നമ്മുടെ സംസ്കാരം ഹിന്ദു സംസ്കാരത്തിൽ വര്ണ വിവാഹ ചടങ്ങുകളിൽ ന്ന് പറയുമ്പോൾ തലേദിവസം രാത്രി ചടങ്ങുകളുടെ മെയിൻ ആയിട്ടിപ്പോൾ തലേദിവസം രാത്രിയില് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്ന കാരണവന്മാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അവരുടെ ഒരു വെറ്റില അടക്ക ഒരു ഡ്രസ്സ് ഇപ്പോൾ നമ്മുടെ താഴെയുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ ചെറിയോരു ഡ്രസ്സ് കാര്യങ്ങൾ മുതിർന്ന ഇപ്പോൾ അച്ഛൻറെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെക്കാട്ടിലും അച്ചച്ചൻ അച്ഛമ്മ അങ്ങനെയുള്ള ബന്ധുക്കാർക്ക് സാധാരണ ഒരു ചെറിയൊരു തുക ദക്ഷിണ ആയിട്ട് വെറ്റില അടക്കയില് അടക്കയും വെറ്റിലയും അത് വെച്ച് കൊടുക്കും പിന്നെ അവർക്കൊരു മുണ്ട് കൊടുക്കും ഇപ്പോൾ അച്ഛന്മാര് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ മുണ്ട് കൊടുക്കും അമ്മമാര്ക്ക് ആണ് പറയുമ്പോൾ സാരി അങ്ങനെയുള്ള ഒരുതാണ് കൊടുക്കൽ പിന്നെ നമ്മുടെ കല്യാണ ചടങ്ങെന്ന് പറയുമ്പോ മണ്ഡപത്തിൽ പോയി താലികെട്ടൽ പിന്നെ അതിൽ വരണത് ചടങ്ങായിട്ട് ആ താലികെട്ട് കഴിഞ്ഞ മൂന്ന് വലം വക്കല് പിന്നെ മോതിരം അങ്ങനെ താലിക്കെട്ടണത് മോതിരം മാറൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് ചടങ്ങ് എന്ന രീതിയിൽ അതില് പറയാൻ പറ്റുക പിന്നെന്താണ് അതില്പ്പോ ചെ കൃത്യമായിട്ടുള്ള ഫസ്റ്റ് ഇപ്പോ എന്താ പറയാ കല്യാണം കഴിഞ്ഞ ദിവസം മിക്കവാറും പെണ്ണിൻറെ വീട്ടിലായിരിക്കും താമസം അതായത് റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന് പെണ്ണിൻറെ വീട്ടിലായിരിക്കും താമസം പിറ്റേദിവസം പിന്നെ രണ്ടുസം കഴിഞ്ഞിട്ട് അന്ന് പിറ്റേദിവസം അവര് വീട്ടിൽ പോകും ചെക്കൻ്റെ വീട്ടീൽ പോകും പിന്നെ നാലാമത്തെ ദിവസം നാലാം പുറപ്പടിന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് അങ്ങനെ അതൊക്കെ തന്നെ നമ്മുടെ സാധാരണ ചടങ്ങ് ആയിട്ട് നമ്മൾ കാണുന്നത്